എനിക്ക് ഞാൻ വാങ്ങിയതിൽ ഏറ്റവും ആദ്യമായി വാങ്ങുന്നത് ഒരു പെട്ടിയാണ് കറുത്ത നിറമുള്ള അതിന് ലോക്ക് ഒക്കെ ഉള്ള നല്ല ഒരു പെട്ടിയായിരുന്നു അത് ഞാൻ പ്രതീക്ഷിച്ച അത്ര ഭംഗിയും തുടർച്ചയായി ഇപ്പോളും തുടർന്ന് കൊണ്ടിരിക്കുന്നു അത് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നു നല്ല മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്ന് പോകുന്നതിൽ ആ പെട്ടിക്ക് വലിയ പങ്കുണ്ട് പെട്ടിയിൽ ഞാൻ ഡോക്യുമെൻറ്സും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അത്യാവശ്യമായ സാധനങ്ങളൊന്നും വെക്കലില്ലെങ്കിൽ ആവശ്യമായ കുറേ സാധനങ്ങൾ വെക്കലുണ്ട് അപ്പോൾ അതിങ്ങനെ കൊണ്ട്പോകുമ്പോൾ നേരെ കൊണ്ടുപോകുന്നു കോളേജിലേക്ക് പോകുന്നു ഹോസ്റ്റലിലേക്ക് പോകുന്നു ഓഫീസിലേക്ക് പോകുന്നു അവിടെ വർക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ എൻ്റെ പെട്ടി എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ചിലപ്പോൾ പെട്ടി പോയി ഉണ്ടാവാം പോയി വരുന്ന വൈക്കിൽ ഞാൻ കാണും സംസാരിക്കും പിന്നെയും പറഞ്ഞു വിടും പെട്ടിയോടുള്ള താൽപ അങ്ങനെയും ഇങ്ങനെയും ആയി യാത്ര തുടർന്ന് കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വെയിൽ വെച്ച് ഞാൻ ആ പെട്ടിയൊരു സൈഡിൽ തട്ടി പൊട്ടാതെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തുടർന്ന് കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് ചിലപ്പം നന്നായി ആകാം പോയിക്കൊണ്ടിരിക്കുകയല്ല ഇപ്പം ഞാൻ പെട്ടി എൻ്റെ ഇവിടെ വെച്ച് മറന്നുപോയി പക്ഷേ ഞാൻ കാണും എവിടെ ഇപ്പോൾ ഓഫീസിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തുടർന്ന് പോകുന്നുള്ള യാത്രയിൽ മനോഹരമായ ഓരോ നിമിഷങ്ങൾക്ക് വേണ്ടി എൻ്റെ പെട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നല്ല പ്രൊഡക്റ്റാണ് എല്ലാവരും വാങ്ങണമെന്ന് അപേക്ഷിച്ച് കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ഓക്കെ താങ്ക്സ്